ഹലോ കുന്നുകണ്ടത്തിൽ ഏജൻസീസല്ലേ ഞാൻ കുന്നുന്നുന്താനത്ത് പാറാങ്കൽ നിന്ന് ശാന്തമ്മയാണെ എന്റെ ഞങ്ങൾ പുതിയ ഒരു വീട് മേടിച്ചു ഞങ്ങൾക്ക് അങ്ങോട്ട് താമസം മാറുകയാണ് അപ്പം നമ്മുടെ ഗ്യാസിന്റെ കണക്ഷനങ്ങോട്ടൊന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചതേ എന്റെ പിന്നെ ഗ്യാസ് കണക്ഷന്റെ നമ്പറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അപ്പം അത് എനിക്ക് പുതിയആ വീടിന്റെ ലൊക്കേഷനിലോട്ട് ഒന്ന് മാറ്റിത്തരണം അതിന് വേണ്ടീട്ടാ വിളിച്ചത് ഞാനിപ്പം പുതിയ വീടെടുത്തിരിക്കുന്നത് കുന്നന്താനത്ത് കവലയ്ക്കടുത്താണ് അതും വീട്ടുപേര് പാറാങ്കലെന്നു തന്നെയാണ് കുന്നന്താനം കവലയോട് ചേർന്നാണ് ആ വീടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചേക്കുന്നത് നിങ്ങൾക്കത് എന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ അപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾ വിവരമറിയിക്കുമല്ലോ ഓക്കെ